ഞങ്ങളുടെ നാട്ടിലൊക്കെ മലയാളഭാഷ തന്നെയാണ് പൊതുവായി എല്ലാവരും ഉപയോഗിക്കുന്നത് ഉപഭാഷ എന്നത് എന്നത് അനുസരിച്ച് വെളിനാട്ടിൽ നിന്നൊക്കെ വരുന്ന അതിഥി തൊഴിലാളികൾ ബംഗാളിഭാഷ മറാത്തി ഭാഷ ഹിന്ദി തമിഴ് എന്നിങ്ങനെ ഉപയോഗിക്കാറുണ്ട് അതൊക്കെ ഇവിടെയുള്ളവർക്ക് അറിയുന്ന ഭാഷ ആയത് കൊണ്ട് തന്നെ കൂടുതലായും മനസ്സിലാവുന്നതുമാണ് പിന്നെ വരുന്നത് ഇംഗ്ലീഷും മലയാളവും കലർത്തി ഉപയോഗിക്കുന്ന മംഗ്ലീഷ് ഭാഷയാണ് അങ്ങനെയൊരു ഭാഷ ഇല്ലെങ്കിൽ പോലും ഇംഗ്ലീഷും മലയാളവും മലയാളവും കലർത്തി ഉപയോഗിക്കുന്നത് കാണാം പിന്നെ വരുന്നത് ഇംഗ്ലീഷ് തന്നെയാണ് ഇംഗ്ലീഷ് ഭാഷ കൂടുതലായും മലയാളികൾ ഉപയോഗിക്കുന്നൊരു ഭാഷ തന്നെയാണ് ജോലി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ആളുകൾ കൂടുതലായും ഇംഗ്ലീഷ് ഭാഷയെ ആശ്രയിക്കാറുണ്ട് യുവജനങ്ങൾ മാതൃഭാഷയിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ടും അവർ അഭിമാനം കൊള്ളുന്ന കാര്യം തന്നെയാണ് വെളി നാട്ടിലൊക്കെ അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പോകുന്ന സ്റ്റുഡന്റ്സ് ആയിക്കോട്ടെ വിദ്യാർഥികളായിക്കോട്ടെ അവർ അവിടുത്തെ ഭാഷ ജർമ്മനിയിൽ പോകുന്നവർ ജർമ്മനി ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് ജർമ്മനിയിൽ പോകുന്നവരുണ്ട് ജപ്പാനിൽ പോകുന്നവർ ജപ്പനീസ് പഠിച്ചിട്ട് ജപ്പാനിൽ പോകുന്നവരുണ്ട് ചൈനയിൽ പോകുന്നവർ ചൈനീസ് പഠിച്ചിട്ട് ചൈനയിൽ പോകുന്നത് കാണാറുണ്ട് അപ്പോൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ആളുകൾ കൂടുതലായതും ഭാഷകൾ പഠിക്കുന്നത് കാണാനിടയായിട്ടുണ്ട് മാതൃഭാഷയിൽ സംസാരിക്കുന്നത് കൂടുതലായും യുവജനങ്ങൾ തന്നെയാണ് അതിൽ ഞാൻ അഭിമാനിക്കാറുമുണ്ട്